ഹലോ ടൂറിസ്റ്റ് ഗൈഡല്ലേ ഞാൻ കോഴിക്കോട്ടുനിന്നായിരുന്നു വിളിക്കുന്നതേ എനിക്ക് വയനാട്ടിലേക്കൊരു ട്രിപ്പ് വരണം ആഗ്രഹമുണ്ട് അപ്പോള് നമ്മളൊരു ഏഴെട്ടു പേരുണ്ടാവും അപ്പോള് ഒരു ഏഴെട്ടു ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോള് അവിടെ പോകാൻ പറ്റിയ സ്ഥലങ്ങളും പിന്നെ പേയ്മെൻറ്റ് അങ്ങനൊക്കെ എങ്ങനെയാണ് ആ ഏഴ് പേരുണ്ടാവും

ഓക്കെ പിന്നെ എനിക്ക് ഒരു ഏഴു ദിവസത്തെ ട്രിപ്പാണ് ആ ഓക്കെ എനിക്ക് ബാണാസുര എടയ്ക്കൽ ഗുഹ അങ്ങനെയൊക്കെ പോകണമായിരുന്നു ആ ഓക്കെ ആ അപ്പോള് എങ്ങനെയാണു നിങ്ങള് പിക്കെയ്യാൻ ഇങ്ങോട്ടു വരുമോ ആ ഞാൻ ലൊക്കേഷനയക്കാം ആ ഓക്കെ എനിക്ക് കുറേ സ്ഥലത്തൊക്കെ പോവാനുണ്ടായിരുന്നു

ആ ഓക്കെ

റിസോർട്ട് പോലെ മതി ആ ഓക്കെ കുഴപ്പമില്ല ആ ഓക്കേ ആ അതു കുഴപ്പമില്ല സെറ്റിലെയ്തോളാം